ഹലോ എനിക്ക് സാമ്പത്തിക ഇടപാടുകള് നടത്തുവാൻ വേണ്ടിയിട്ട് ഒരു പാൻ കാർഡ് ആവശ്യമുണ്ടായിരുന്നു അവിടെ അത് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള വിവരം തിരക്കുന്നതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് എനിക്ക് ഞാൻ എൻ്റെ രസീത് അവിടെ വന്ന് ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അത് നിങ്ങളെനിക്ക് ഒര് രസീത് തന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തില് ഞാൻ ഒന്നും കൂടെ അത് ഓർമിപ്പിക്കുകയാണ് എൻ്റെ ജനന തീയതി ഇരുപത് അഞ്ച് ആയിരത്തിത്തൊള്ളായിരത്തി അറുപത്തി അഞ്ചാണ് അതുപോലെതന്നെ നിങ്ങൾ തന്ന രസീതിൻ്റെ റഫറൻസ് നമ്പർ പതിനാറ് പൂജ്യം രണ്ട് അഞ്ച് ഏഴ്